ഹലോ ഞാൻ ഒരു ക്യാബ് ബൂക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായായിരുന്നു എനിക്ക് നാളത്തേക്ക് നാളത്തേക്ക് എനിക്ക് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാമോ അതായത് നാളെ തീയതി എത്രയാണ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴ വരെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ രാവിലെ ഒരു ആറു മണിയാകുമ്പോഴത്തേക്കും ടാക്സി ഇവിടെ വരണം കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോഗ്രാം നടക്കുന്നത് പതിനൊന്ന് മണിക്ക് ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അര മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തിച്ചേരണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ആറ് മണിയാകുമ്പോഴത്തേക്കും ടാക്സി ഇവിടെ വരണം ഞങ്ങൾ ഒരു അഞ്ച് പേരുണ്ടാകും അ അത്രയും പേർക്ക് സൗകര്യമായിട്ട് പോകാൻ വിധത്തിലുള്ള ഒരു ടാക്സി ആയിരിക്കണം ആ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ആണ് വച്ചാൽ ഇവിടെ കുട്ടനാട് സിറ്റിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട് ഒരു മാതാവിൻ്റെ ഒരു ചർച്ചുണ്ട് ആ ചർച്ചിൻ്റെ അവിടെ വന്നാൽ മതി ഞങ്ങളെല്ലാവരും അങ്ങോട്ട് എത്തിക്കോളാം ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതിയെ ഞങ്ങളെല്ലാവരും അന്നേരത്തേക്ക് അങ്ങോട്ട് എത്തിക്കോളാം ആ വളരെ സൗകര്യമുള്ളൊരു ടാക്സി ആയിരിക്കണം ഫുൾ എ സി ആയിരിക്കണം പിന്നേ ആ മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല ഇത്രയേ ഉള്ളു ആറു മണിയാകുമ്പോഴത്തേക്കും ഇവിടെ വരണം നമുക്ക് അവിടെ ഒരു പത്തരയാകുമ്പോൾ ചെല്ലണം പ്രോഗ്രാം പതിനൊന്ന് മണിക്കാണ് ആ രീതിയിൽ ഇവിടെ നിന്ന് പോകണം അഞ്ച് പേരുണ്ട് വണ്ടി നല്ല കണ്ടിഷൻ ആയിരിക്കണം പോകുന്ന വഴി മറ്റ് വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും നല്ല ഒരു ടാക്സി തന്നെ അറേഞ്ച് ചെയ്തു ഞങ്ങൾക്ക് തരണം കുട്ടികൾ ഉണ്ടായിരിക്കും രണ്ട് കുഞ്ഞു കുട്ടികൾ കൂടെ ഉണ്ട് അത്കൊണ്ട് നല്ലൊരു ടാക്സി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരണം ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ